വരയ്ക്കുമ്പം നമ്മൾ ആ പല രീതിയിൽ കലാ സാമഗ്രികൾ ഉപയോഗിക്കാറുണ്ട് ബോർഡുകളിലൊക്കെ ആണെങ്കിൽ ചോക്ക് ചോക്ക് വെച്ച് വരയ്ക്കുന്നു പല നിറങ്ങളുള്ള ചോക്കുകള് വെച്ച് വരയ്ക്കുന്നു പല രീ നിറങ്ങളുള്ള ആ ചിത്രങ്ങൾ വരയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു പേപ്പറാണെങ്കിൽ ഉപയോഗിക്കുന്ന പേപ്പറിലോ പെൻസിലുകൾ ഉപയോഗിക്കുക പേനകൾ ഉപയോഗിക്കുക കളർ പല നിറത്തിലുള്ള നിറങ്ങളുള്ള നിറങ്ങളുള്ള പെൻസിലുകളൊക്കെ നമ്മള് പേന പേപ്പറുകൾ ഉപയോഗിക്കാനും ആ സാധനങ്ങളിൽ നമ്മൾ പല രീതിയിലുള്ള പെയിൻറ്റുകള് വരയ്ക്കാനായിട്ട് മാർക്കറ്റ് മാർക്കറ്റിലെ കമ്പോളത്തില് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ആവശ്യാനുസരണം ലഭിക്കുന്ന നിറങ്ങളുള്ള പെയിൻറ്റുകളും ബ്രഷും ഉപയോഗിച്ച് ക്യാൻവാസിൽ നമ്മള് പടങ്ങള് വരയ്ക്കുന്നു പടങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള ബ്രാൻഡുകൾ ഒത്ത് ചേർന്ന് ക്യാമലിൻ തുടങ്ങിയ കമ്പനികളുടെ ബ്രാൻഡുകൾ നല്ലതാണ് പിന്നെ ആ നമ്മള് വേറെ വരയ്ക്കുമ്പോള് ഭിത്തിയിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മള് കല്ലുകളൊക്കെ ഉപയോഗിക്കാം കല്ലുകളൊക്കെ പല നിറത്തിലുള്ള കല്ലുകളൊക്കെ നമ്മുടെ മണ്ണിൽ ഇന്ന് അവൈലബിൾ ആണ് അത് വേണം നമ്മൾ അത്തരത്തിലുള്ള കല്ലുകളൊക്കെ നമ്മള് ആ വരയ്ക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നു പെയ്ൻറ്റും പെയ്ൻറ്റുകൊണ്ടും നമുക്ക് ഭിത്തിയിലും വരയ്ക്കാം പേപ്പറുകളില് വരയ്ക്കാം ക്യാൻവാസുകളിൽ വരയ്ക്കാൻ സാധിക്കും ഇത് പെയിൻറ്റ്സുകളും പേനയും ഒരുമിച്ച് വരയ്ക്കാനും ചോക്കുകൾ വെച്ച് വരച്ചതിൻ്റെ ബോർഡറുകൾ അതിരുകൾൻ്റെയാ അത് നമ്മള് രേഖപ്പെടുത്തുവാനായിട്ട് നിറങ്ങളൊക്കെ ബ്രഷ് വെച്ച് നമ്മള് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ പല രീതിയിലുള്ള ബ്രാൻഡുകളുടെ എല്ലാം നിങ്ങൾക്ക് വാങ്ങാനുണ്ടാവും നമ്മള് പ്രധാനമായിട്ടും വാങ്ങുന്നത് മാർക്കറ്റുകളിലാണ് ഇത്തരത്തിലുള്ള ബുക്ക് സ്റ്റാളുകളിലൊക്കെ ഇതൊക്കെ നമുക്ക് അവ ലഭ്യമാണ് എന്ന് വെച്ചാൽ നിറങ്ങൾക്കാണ് ഏറ്റവും കൂടുതല് നിറങ്ങളുള്ള വില കൂടുതല്